നമ്മുടെ നോർത്തിന്ത്യയില് ഈ ചൂടുകാലത്ത് പോകാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഹിമാചലിലുള്ള കുളു മണാലി അങ്ങനെയുള്ള സ്ഥലങ്ങള് പിന്നപ്പുറം പോയാല് കാഷ്മീര് അപ്പോള് ഈ ചൂടുകാലത്ത് ഒരു തണുപ്പിന് വേണ്ടിയിട്ട് പോകാൻ പറ്റിയ സ്ഥലങ്ങളാണ് കുളു മണാലികളൊക്കെ പിന്നതിന്റപ്പുറം യു പിയിലുള്ളതാണ് നമ്മളെ താജ്മഹല് ഷാജഹാൻ മൂംതാസിന് വേണ്ടി പണി കഴിപ്പിച്ച താജ്മഹല് നമ്മുടെ യമുനാ നദി തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അവിടെനിന്ന് ഇപ്പുറം പോന്നാല് പിന്നെ നമ്മളെ സൗത്തിന്ത്യക്ക് പോന്നാല് കർണാടകയില് മൈസൂര് ബാംഗ്ലൂര് അങ്ങനെയുള്ള സ്ഥലങ്ങൾ മൈസൂരിലൊക്കെ കുറേ സുൽത്താക്കൻമ്മാര് പണി കഴിപ്പിച്ച കൊട്ടാരങ്ങളും അങ്ങനെ കുറേ കോട്ടകളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ കേരളത്തിലോട്ട് വന്നാല് തന്നെ വയനാട് എടക്കൽ ഗുഹ അങ്ങനെ കുറേ ബ്രിട്ടീഷുകാര് പണിയിച്ച ഗുഹകളും വെള്ളച്ചാട്ടങ്ങൾ സൂചിപ്പാറ കാന്തൻപാറ പോലുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ ഈ നമ്മളെ കേരളത്തിലുമുണ്ട് പിന്നെ ഇടുക്കിയില് കുറേ അണക്കെട്ടുകള് പണ്ട് പണി കഴിപ്പിച്ച പെരിയാര് അങ്ങനെയുള്ള പഴയ അണക്കെട്ടുകള് എത്ര എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിലൊക്കെ പണി കഴിച്ച അണക്കെട്ടുകളൊക്കെയാണ് അവിടുള്ളത് പിന്നെ ഇപ്പോള് നമ്മുടെ പാലക്കാട് സൈലൻറ്റ് വാലി പിന്നെ തൃശ്ശൂര് മൃഗശാല അങ്ങനെ കുറേ സംഭവങ്ങള് ഇവിടെ കേരളത്തിലുണ്ട് ഇന്ത്യയിലുള്ള